ഞങ്ങൾ ഇ ഈ പ്രദേശത്തൊക്കെ പണ്ട് ഈ മുള കൊണ്ടൊക്കെ കൂടുതലിവിടെ വീടുകൾ അ ഇപ്പോഴാണ് ഒരൂ ഈ കൽ കല്ലു കൊണ്ടൊക്കെയുള്ള വീടുകളായെ പണ്ടൊക്കെ മുള കൊണ്ടൊക്കെയുള്ള മുള വീട് ഇപ്പം ഈ പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ വെക്കുന്ന അതുപോലത്തെ മുള വീടൊക്കെയായിരുന്നു ഞങ്ങളുടെയീ പ്രദേശത്തു കൂടുതലും ഇപ്പോഴൊക്കെയിങ്ങനെ ആയ് വീടായത് ഇപ്പം ഇതീ ചിരട്ടകളും ചിരട്ട കൊണ്ട് ഇപ്പം ഈ യൂറ്റ്യൂബുകളിലൊക്കെ കൂടുതലും ചിരട്ട കൊണ്ടുള്ള ആർട്സ് കണ്ടു ഞങ്ങൾക്കിപ്പം ചിരട്ട കൊണ്ടൊക്കെ വീട് അലങ്കരിക്കാറാണ് പതിവ് ചിരട്ടയിലിങ്ങനെ പല പല ഡിസൈനുകൾ വരച്ച് അതിൽ ചെടി നടുകയും പണ്ടൊക്കെ കുഞ്ഞിലെ ഒക്കെ ഞങ്ങൾ ഞാൻ കളിച്ചതായിട്ടോർക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഈ കഞ്ഞിയും കറിയും വെക്കുമ്പോളൊക്കെ ചിരട്ടകൾ ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നെ അമ്മയൊക്കെ തേങ്ങ പൊട്ടിച്ചാൽ ചിരട്ടയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഞങ്ങളൊക്കെ പണ്ട് അതെല്ലാം എടുത്തു കളിക്കുന്നതുമെല്ലാം ഇപ്പം എനിക്ക് ഓർമ്മ വന്നു ഈ മുളകൾ കൊണ്ട് ഇപ്പം ഞങ്ങൾ മുളകൾ കൊണ്ട് ഒരൂ ഇവിടെ ഞങ്ങടിവിടെ ചുറ്റുവേഴ്സും സ്ഥലത്തു മുളകൾ കൊണ്ട് ഒരു വീടൊക്കെ ഒരു ടെൻ്റൊക്കെ പോലെ കെട്ടി അവടിപ്പം ഈ വിദേശത്തു നിന്നു വരുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ അവിടെ ഞങ്ങൾ കൂടുതലും ചിരട്ടകൾ ചിരട്ടയും കൊണ്ടൊക്കെ ആർട്സാണ് ഫുള്ളവിടെ കൂടുതലും ചെയ്യുന്നത് ഞങ്ങളും ഞങ്ങളുടെ ഈ പ്രദേശത്തെ അഞ്ചെട്ട് കുട്ടികളും എല്ലാം കൂടി ഞങ്ങൾ ചെയ്തൊരു സംരംഭവമാണിത്